ഇവിടെ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് കടകളൊന്നുമില്ല ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് ഉള്ളത് അതിൽ ഒരു കടയിൽ നിന്നാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് സാധങ്ങൾ വാങ്ങാറ് ഒരുപാട് സാധങ്ങൾ വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ പൈസ ഒക്കെ റെഡി ക്യാഷ് ഒന്നും കൊടുക്കാനുണ്ടായില്ല അപ്പം പിന്നീടൊക്കെ കൊടുക്കാറുള്ളൂ ആ ഇവിടെ മിക്കവാറും ആൾക്കാർ അങ്ങനൊക്കെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ കണക്ക് എഴുതിയ ഒരു ബുക്ക് അവരുടെ കൈയിലും കാണും നമ്മുടെ കൈയിലും കാണും അതുകൊണ്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ടാവും എല്ലാവിധ സാധങ്ങളും ആ കടയിലുണ്ട് അരി പഞ്ചസാര എണ്ണ ഉപ്പ് മുളക് അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധങ്ങളും അവിടെ തന്നെയുണ്ട് പ്രത്യേകിച്ച് നമ്മളങ്ങനെ വിലപേശാനൊന്നും പോകേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഒന്നാമത് റെഡി ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ല പിന്നെ അത് തന്നെയല്ല വലിയ വിലയൊന്നും അവിടെന്ന് അങ്ങനെ ഈടാക്കാറില്ല അപ്പം പിന്നെ നമ്മളങ്ങനെ വിലപേശി വാങ്ങാറൊന്നുമില്ല എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അത്യാവശ്യം വേണ്ട സാധങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ സാധങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പിന്നെ ടൗണിലൊട്ടൊന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്